നെയ്തിനും തുന്നലിനുമുള്ള സാധനങ്ങളില് പ്രധാനമായിട്ടും നെയ്ത്ത് ശാലകള് ഇവിടെയില്ല തുന്നലിനുള്ള സൂചി കൈ സൂചി മിഷ്യൻ സൂചി അമ്പർല സൂചി സാധാരണ മിഷ്യൻ്റെ സൂചി പിന്നെ എംബ്രോയിഡറി നൂല് സാധാരണ മിഷനിൽ ഉപയോഗിക്കുന്ന നൂല് ബോബന് ബോബൻ കേയ്സ് എംബ്രോയ്ഡറി തയ്ക്കാൻ വേണ്ടിയുള്ള റിംഗ് പിന്നെ എംബ്രോയ്ഡറി കമ്പിളി നൂല് തയ്ക്കുന്ന സൂചി എന്നിവയൊക്കെയാണ് സാധാരണയായി ഇവിടെയുള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് മോട്ടോർ വെച്ച് തയ്ക്കുന്ന മെഷീനുകൾ ആണ് കൂടുതലായി എല്ലാവരും വാങ്ങുന്നത് അത് കൂടുതല് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ് അവയ്ക്ക് സ്പീഡ് ക്രമീകരിച്ച് ചെയ്യണമെങ്കില് സാധാരണ മിഷിനാണ് കൂടുതലായിട്ടും തയ്യൽ പഠിച്ചു തുടങ്ങുന്ന വ്യക്തികൾക്ക് നല്ലത് സ്വന്തമായിട്ട് തയ്യല് പഠിച്ചാല് ഇപ്പഴത്തെ ഓരോ തുണിത്തരങ്ങള് തയ്ക്കുന്നതിൻ്റെ വില വെച്ച് നമുക്ക് തുണികളുടെ വിലകള് തുച്ഛമാണെന്നാൽ തയ്യൽ കൂലി കൂടുതലാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്